നമ്മൾ യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും ഒക്കെ വീഡിയോലും വീഡിയോകളും റീൽസുകളൊക്കെ കാണാരുണ്ട് പിന്നെ അങ്ങനെ പ്രിയപ്പെട്ട നർത്തകരൊന്നുമില്ല കാണുന്ന ഷോസെല്ലാം ഇഷ്ടമാണ് അപ്പം കാണുമ്പോൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവരെ ഫോളോ ചെയ്യുക അവരെ അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക ലൈക് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ എന്താപറയുക ഇപ്പോൾ ഡാൻസായാലും പാട്ടായാലും അതുപോലെത്തന്നെ കോമഡി സീൻസുകളായാലൊക്കെ നല്ലവണ്ണം ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് പിന്നെ വെറുതേ ഒരിതിനു വേണ്ടിയിട്ട് ചെയ്യുന്നവരെ അധികം മൈൻഡ് ആക്കാറില്ല പിന്നെന്താ പറയുക ഒരുപാട് നല്ല നർത്തകരൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക അവരുടെ വീഡിയോസൊക്കെ കാണുക അവരെ എന്താ ഷോർട്സൊക്കെ കാണുക അങ്ങനെയൊക്കെത്തന്നെയാ ണ് സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ടും അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് ഫ്രീയുള്ള സമയങ്ങളിൽ